ആളുകൾ വീട്ടുമുറ്റത്ത് ചാണകം തളിക്കുന്ന പതിവ് പണ്ടുകാലങ്ങളിലാണ് കണ്ടു വന്നിരുന്നത് സാധാരണയായി ആളുകൾ വീട്ടുമുറ്റത്ത് ചാണകവെള്ളം തളിക്കുന്നത് വീട്ടുമുറ്റത്തെ പൊടികൾ ഒതുങ്ങാനും വൃത്തിയായി സൂക്ഷിക്കാനുമാണ് അതുപോലെ ശുചീകരണം നടത്താനും ശുദ്ധികലശം നടത്താനും ചാണകവെള്ളം തളിക്കുന്നതായി കേട്ടിട്ടുണ്ട്